അതേല്ലോ ആരാണ് വിളിക്കുന്നത് ആ എന്താണ് എന്ത് പറ്റി നിങ്ങൾക്ക് പറയൂ ആ ആ ആ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കാൽ ഒന്ന് കഴുകി നോക്കൂ ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങടെ വാട്ട്സപ്പ് നമ്പറെനിക്ക് അയച്ചേക്കൂ ഞാൻ അതിനകത്തേയ്ക്ക് ഒരു ഓൾമെൻറ്റിൻ്റെ പേര് അയച്ച് തരാം അപ്പം നിങ്ങളത് ഉപയോഗിക്കൂ അത് ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങളുടെ നീര് എന്തായാലും കുറയും ഞാൻ ഇപ്പോൾ രണ്ട് ദിവസത്തേയ്ക്ക് സ്ഥലത്ത് സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പം അത് കഴിഞ്ഞ് നിങ്ങളൊന്ന് എന്നെ വന്ന് കാണൂ ആ ശരിയെങ്കിൽ ആ ആ ആ ശരി എങ്കിൽ